പതിനഞ്ച് നാല് രണ്ടായിരത്തി അഞ്ച് ഒന്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് എട്ട് നാല് രണ്ടായിരത്തി ആറ് ഏഴ് നാല് രണ്ടായിരത്തി ഇരുപതെട്ട് പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്